ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ കീപാഡ് ഫോണാണ് ഉപയോഗിച്ച് കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറ് ആയപ്പോത്തേനാണ് ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് സ്മാർട്ട് ഫോണും കീപാഡ് ഫോണും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളത്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും അറിയിക്കുവാനും നമുക്ക് സാധ്യമാണ് കീപാ കീപാഡ് ഫോണിലാണെൽ അതൊന്നും സാധിക്കുകയില്ല ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജിയോടെ സിം ആണ് എനിക്ക് ഫൈവ് ജി നെറ്റ്വർക്കാണ് ഇവിടെ ലഭിക്കുന്നത് നല്ല സ്പീഡിലാണ് ഇവടെ എനിക്ക് നെറ്റ് വർക്ക് കിട്ടാറുള്ളത് ഇരു ഞാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീചാർജ് ആണ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റീച്ചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോളും എനിക്ക് റ്റൂ ജീ ബി നെറ്റും ഡയലി ഉപയോ കിട്ടുന്നതാണ് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ദിവസത്തേനാണ് ഞാന് റീച്ചാർജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ചെയ്തിരിക്കുന്നത് പഴയ ഫോണിനെ സംബദ്ധിച്ച് ഇപ്പഴത്തെ സ്മാർട്ട് ഫോണെന്ന് വെച്ചാൽ വളരെ വളരെ വളരേ ഫലപ്രദമാണ് നമുക്ക് സോഷ്യൽ മീ വാട്സാപ് ഫെയ്സ്ബുക്ക് യൂറ്റൂബ് അങ്ങനെയുള്ള അപ്പത്തേന് നമുക്ക് കീപാഡ് ഫോണിൽ ഇതൊന്നും ലഭിക്കുകയില്ല സ്മാർട്ട് ഫോണിലാണ് ഇത് ലഭിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഒന്നുംകൂടെ സൗകര്യമാണ് മറ്റുള്ള കാര്യങ്ങളറിയുവാനും അറിയിക്കുവാനും ഒന്നും കൂടെ നമുക്ക് സൗകര്യപ്രദമാണ് സ്മാർട്ട് ഫോൺ